വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കുട്ടികളെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും കുട്ടികളുടെ താല്പര്യം വർധിക്കാനും സഹായിക്കുന്നു ക്ളാസ് റൂമുകൾ ഹൈട്ടെക്കാക്കിയുള്ള സർക്കാർ പദ്ധതികൾ ഇതിന് ഉദാഹരണമാണ് കൂടാതെ ക്ലാസ്സ് റൂമുകളിൽ ഐ സി റ്റിയുടെ ഉപയോഗം എ ഇ ഒ ഡി ഓ മാരുടെ സ്പെഷ്യൽ റെക്കമടേഷനിൽ ചെക്ക് ചെയ്യുന്നതും നിർബന്ധമായും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠനം നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നതാണ് അധ്യാപകരുടെ അദ്ധ്വാനത്തിനുള്ള കാഠിന്യം കുറയ്ക്കാനും പഠനം എളുപ്പകരമാക്കാനും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സഹായിക്കുന്നു അറിവുകൾ വിരൽ തുമ്പത്ത് എത്തുന്ന ഈ കാലഘട്ടത്തിൽ ഗൂഗിൾ ഇൻറ്റർനെറ്റ് പ്രൊജക്ടർ ലാപ്ടോപ്പ് മുതലായവയുടെ സഹായത്തോടെ പി പി റ്റി തയ്യാറാക്കിയുള്ള പഠന ലെക്ച്ചർ രീതികൾ സമയബന്ധിതമായി പോഷൻ തീർക്കാനും മറ്റിനും നമ്മളെ സഹായിക്കും